ഇവിടെ കിട്ടുന്ന മീനെന്ന് പറയുമ്പോൾ കൂടുതലും മത്തി അയല പിന്നെ അങ്ങനെയുള്ള പലതരം മീനുകൾ ഉണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ വില്പന നടക്കുന്നത് മത്തി അയല എന്ന് പറയുന്ന ചാള അങ്ങനെയുള്ള മീനുകളാണ് കൂടുതൽ പോകുന്നത് പക്ഷേ അതിൻ്റെ വിലാന്ന് പറഞ്ഞാൽ മത്തിക്ക് ഇരുന്നൂറ് മറ്റേത് അയല ഇരുന്നൂറ്റിയറുപത് അങ്ങനെ ചെറിയ മീനുകൾക്കെല്ലാം തന്നെ ഭയങ്കര വിലയാണ് ഇവിടെ മറ്റേ കൊഞ്ച് മറ്റേ എന്താപറയാ ചെറിയ തരം പലതരം മീനുകൾ ഉണ്ടല്ലോ അതിനൊക്കെ ഭയങ്കര ഇരുന്നൂറിൽ കുറയാണ്ട് പൈസ കൊടുക്കണം മീനിനൊക്കെ മറ്റേ വലിയ മീനൊക്കെ പറയുകയാണെങ്കിൽ പിന്നെ വലിയ മീൻ എന്ന് പറയുമ്പോൾ അതിന് ഭയങ്കര പൈസയാണ് അഞ്ഞൂറ് ആയിരം ആയിരത്തി അഞ്ഞൂറൊക്കെ കൊടുക്കണം മീനിന് പിന്നെ നമ്മളല്ല ഈ നാട്ടിൽ കൂടുതൽ വരുന്നത് മത്തി അയല പിന്നെ അങ്ങനെ അയക്കൂറ അങ്ങനെയുള്ള അയ്ക്കൂറയ്ക്കെല്ലാം മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് ഒക്കെ കൊടുക്കണം ഏറ്റവും കൂടുതൽ മീനിന് ചിലവെന്ന് പറയുമ്പൊ ഈ മത്തി അയല എന്ന് പറയുന്ന മീനിന് മാത്രമേ വിലയുണ്ടാവുകയുള്ളൂ മറ്റേതിനെക്കാളും വില കൂടുതലായതുകൊണ്ട് ആരും അങ്ങനെ അധികം ഉപയോഗിക്കില്ല പിന്നെ പൈസക്കാരൊക്കെയാണ് അതൊക്കെ വാങ്ങുക നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് അതൊന്നും വാങ്ങാനുള്ള കഴിവില്ല